നമസ്കാരം ഞാൻ അശോക് ദാ ഇന്ത്യയില് രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചുമാണ് ഞാൻ പറയുന്നത് ജനാധിപത്യമെന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഗെവൺമെൻ്റെ എന്നാണ് നാം പഠിച്ചിരിക്കുന്നത് അത് ശരിയാണ് വളരെ നല്ലൊരു ഉപായമാണ് എന്നാൽ ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ പേരിൽ നടക്കുന്നത് വളരെ വലിയ കള്ളങ്ങളാണെന്ന് നമുക്കെല്ലാവർക്കുമറിയാം സത്യത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യമെന്ന് പറയുന്നത് ഒരാട്ടിൻ തോലിട്ട ചെന്നായ ആണ് പണ്ടൊക്കെ ഈ കള്ളത്തരങ്ങളുടെ അളവ് വളരെ അധിക അധികം കുറവായിരുന്നെങ്കിലും പിന്നീട് പിന്നീടത് കൂടി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ജെ ജനാധിപത്യത്തിൻ്റെ യാതൊരു നന്മവശ് നല്ലവശങ്ങളും ഇപ്പോളുള്ള കേര ഇപ്പോൾ ഇന്ത്യയിലുള്ള ജനാധിപത്യത്തിനില്ലെന്ന് വേണേൽ നമുക്ക് പറയാം ഇന്ത്യയുടെ ജനാധിപത്യം വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എ എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവെന്ന് പറയുന്നത് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്തനാണ് അദ്ദേഹത്തോടുള്ള ബഹുമാനം എനിക്കുള്ള ബഹുമാനം കുറച്ചൊന്നുവല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അനുഭവങ്ങളാണ് എനിയ്ക്കദ്ദേഹത്തോട് നേരിട്ട് കാണാൻ പറ്റിയാൽ ചോദിക്കാനുള്ള ചോദ്യം